നോബല് ബുക്ക് ഓഫ് ജ്ഞാനപീഠം മുതലായവ കിട്ടിയ എഴുത്തുകാരെ തേടി അങ്ങനെ വായിക്കാറില്ല ചില പുസ്തകങ്ങള് മനസ്സിന് ഇഷ്ടപ്പെട്ട് തോന്നിയാല് അതു വായിക്കും അതാണ് പ്രത്യേകിച്ചങ്ങനെ നോവല് പ്രസ്ഥാനവും ജ്ഞാനപീഠവും നേടിയ പുസ്തകങ്ങള് എഴുത്തുകാരുടെ പുസ്തകങ്ങള് വായിക്കാറില്ല ഞാന് വായിക്കുന്ന നേരത്ത് വായിക്കുന്ന മുട്ടത്തു വർക്കിയുടെ പുസ്തകങ്ങളായിരുന്നു അങ്ങനെ ജ്ഞാനപീഠം കിട്ടിയവര് അവരുടെ പുസ്തകങ്ങള് തേടി വായിക്കാറില്ല പിന്നെ ആരെങ്കിലും ആരെങ്കിലും പറയും ഇന്ന പുസ്തകം നല്ലതാണ് അത് വായിച്ചാൽ നല്ലതാണ് നല്ല നോവലാണ് അങ്ങനെയുള്ള പുസ്തകങ്ങള് വായിക്കാറുണ്ട് പിന്നേ ജ്ഞാനപീഠം കിട്ടിയവരുടെ അത് കിട്ടിയവരുടെ പുസ്തകങ്ങള് വായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പക്ഷെ ഞാന് വായിച്ചിട്ടില്ല ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന പുസ്തകങ്ങള് ആരെങ്കിലും വായിക്കുന്ന അത് നല്ല പുസ്തകം ആണന്നൊന്ന് അവർ എന്നോട് പറയുകയാണെങ്കില് ആ പുസ്തകം ഒന്നുകൂടി ഞാൻ വായിക്കും അല്ലാണ്ട് ആരെങ്കിലും റെക്കമെന്റ് ചെയ്താലും വായിക്കും ഇന്ന പുസ്തകം നല്ല പുസ്തകമാണ് വായിക്കാന് നല്ല ഇഷ്ടമാണ് നല്ല അറിവ് കിട്ടും നോവല് നോവല് നോവലിനകത്ത് അറിവ് കിട്ടത്തില്ല അറിവ് കിട്ടുന്ന പുസ്തകങ്ങൾ വായിക്കാറുണ്ട് നോവല് നല്ലതാണെന്ന് ആരെങ്കിലും വായിച്ച് പറയുകയാണെങ്കിൽ അത് വാങ്ങിച്ച് വായിക്കും അല്ലാണ്ട് നോവല് നോവല് നോബല് പുരസ്കാരം കിട്ടിയ ആള്ക്കാരെഴുതിയ പുസ്തകങ്ങളൊന്നും വായിച്ച് കാണും പക്ഷെ ഞാനധികം ശ്രദ്ധിച്ചിട്ടില്ല